ഹലോ എടീ നീ എവിടെയാണ് ആ എടീ നിനക്ക് നെറ്റ്ഫ്ലിക്സില്ലേ ആ അതെങ്ങനെയാണ് അക്കൗണ്ടൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് കൊള്ളാമോ സംഭവം

അത് എത്ര രൂപയൊക്കെ ആവും എമൗണ്ട്

ഓക്കെ ഓക്കെ ആ ആമസോൺ പ്രൈമാണോ അതോ നെറ്റ്ഫ്ളിക്സ്സാണോ കൂട് കുറച്ചുകൂടെ ബെറ്റർ അ ഓക്കെ ഓക്കെ ആ ഹ ഓക്കെ ഓക്കെ ഈ നം ആ പറഞ്ഞോ പറഞ്ഞോ ഓക്കെ ആ ആ ആ ഹ ഹ ആ ടീവിയിപ്പോൾ അങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചത് അതിനകത്ത് ടീവിക്കകത്തൊരുപാടായാൽ നമ്മൾ വിചാരിക്കുന്നതൊന്നും കിട്ടുന്നില്ലല്ലോ അവൈലബിൾ ആ ആ ഒന്നും കിട്ടിക്കത്തില്ല അപ്പോൾ പിന്നെ നെറ്റ്ഫ്ലിക്സിനെപ്പറ്റി ആലോചിച്ചത് ആഹാ ആ ആഹാ

ഓക്കെ ഓക്കെ ഈ നെറ്റൊക്കെ ഒരുപാട് കൺസ്യൂമാവുമോ എങ്ങനെയാണ്

ആ ഓക്കെ ആ ഉം

ആ ഹാ ഹാ അതിനെപ്പറ്റി ചോദിക്കാനായിട്ടായിരുന്നു എനിക്ക് നെറ്റ്ഫ്ലിക്സെടുക്കണമെന്നിങ്ങനെയൊരു താൽപര്യം അതാണ് പി നിന്നോടു ചോദിക്കുന്നത് നീ ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു അതാണ് ഞാൻ വിളിച്ചത് ആ ഹ ഇപ്പം ടീവിയൊന്നും നമ്മളങ്ങനെ അധികം കാണുന്നില്ല അപ്പോൾ പിന്നെ നെറ്റ്ഫ്ലിക്സിലോട്ടാക്കാം എന്ന് വിചാരിച്ചാക്കി ആ ഹാ നീ പ ആ അതാണ്

ആ എന്നാൽ പ് എടുക്കാനാണ് എടുക്കാന്ന് വെച്ചു നിൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു

ആ അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് നിന്നെ വിളിക്കാം എങ്ങനെയുണ്ടെന്ന് നിൻ്റെ ഒരിത് അഭിപ്രായം കേട്ടിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ് നെറ്റ്ഫ്ലിക്സൊക്കെ ആ അപ്പോൾ ആ ആ ശെരിയെങ്കിൽ